പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനാറ് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് അന്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അന്പത്തി അഞ്ച് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് തൊണ്ണൂറ്റൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട്